ഇപ്പൊൾ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ തൊഴിലിലായിക്കോട്ടെ നിലവിലൊക്കെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ആൾക്കാര് അതായത് സ്ത്രീകള് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊൾ കോഴിക്കോടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക മത്സ്യബന്ധനം അങ്ങനൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും കുറെയൊക്കെ അപ്പൊൾ അവർക്കൊക്കെ എന്താ പറയുക സ്ത്രീകൾക്ക് കടലിലൊക്കെ പോയി മീൻ പിടിക്കാനൊന്നും വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നും ഇല്ല അവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക അങ്ങനെയൊക്കെയാണ് കൂടുതലും വീട്ട് കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് പോകുന്നവരാണ് കൂടുതലും അതുകൊണ്ട് അവർക്ക് അതിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്ത് കൊടുക്കാനൊന്നുല്ല പിന്നെ ബാക്കി ഇപ്പം കോഴിക്കോട് ജില്ലയില് കൂടുതലും മുസ്ലിംസ് അങ്ങനൊള്ള വിഭാഗങ്ങളിലൊള്ളവരാണ് കൂടുതലും ഉള്ളത് അപ്പൊൾ അവരെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവര് പതിനെട്ട് വയസ്സാവുമ്പൊത്തേക്കും പെൺകുട്ടികളെ കെട്ടിച്ച് വിടവാണ് സാധാരണ ചെയ്യാറ്

അവർക്ക് കൂടുതല് വലിയ വിദ്യാഭ്യാസം ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ അതിനോടൊന്നും വല്യ ഇൻ്ററസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം പിന്നീടൊരു കുടുംബം നോക്കി ജീവിക്കണന്നൊള്ള ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ് അവര് ചെയ്യുന്നത് അപ്പൊൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ആണ് ഇപ്പൊൾ തോന്നുക കാരണം സ്ത്രീകള് നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അത് ജോലിക്കൊന്നും പോകാൻ കഴിയാണ്ട് ഭർത്താവിൻ്റെ ചെലവിൽ താമസിക്കാന്നൊള്ളതാണ് അവരുടെ ഒരു പ്രശ്നം